പരിശീലനപ്രക്രിയയിൽ ആദ്യമൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കര അതായത് കരാട്ടയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതായത് നമ്മൾ ആദ്യമായിട്ട് ക്ലാസിനൊക്കെ പോവുമ്പോൾ എങ്ങനെന്നുവെച്ചിട്ടുണ്ടെൽ നമ്മള് ആദ്യമായിട്ട് ക്ലാസ്സ് തുടങ്ങിയെന്ന് വെച്ചോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ക്ലാസിൽ പോവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശരീരമൊക്കെ ഇളകി കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ വലിയ കുഴപ്പമുണ്ടാവില്ല നമ്മള് ആ ഉഷാറില് കളിക്കും പക്ഷെ നമ്മള് വൈകുന്നേരമായിട്ട് കുളിച്ച് കുളി കഴിഞ്ഞിട്ടുണ്ടെൽ പിന്നെ നമുക്ക് മേലുവേദന എടുത്തിട്ട് എണീക്കാനും ഇരിക്കാനും നിക്കാനും പറ്റാത്ത അവസ്ഥ ആയിരിക്കും അത് വല്ലാത്തൊരു അവസ്ഥയായി തോന്നിയിട്ടുണ്ട് പിന്നെ പരിക്കുകളെന്ന് വെച്ചിട്ടുണ്ടെൽ അങ്ങനെ വലിയ പരിക്കുകളൊന്നുമില്ല നമ്മള് കാരാട്ടെയൊക്കെ പഠിക്കുമ്പോൾ ജസ്റ്റ് താഴെക്കൊക്കെ ഒന്ന് വീഴുമെന്നെല്ലാണ്ട് എനിക്ക് വലിയ ഒരു പരിക്കുകളൊന്നും വന്നിട്ടില്ല പിന്നെ എനിക്ക് ആദ്യത്തെ ദിവസം ഒരു രണ്ട് ദിവസം ഭയങ്കര മേലുവേദന കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെന്നു വെച്ചിട്ടുണ്ടെൽ കളരി പഠിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ മേത്ത് ഇങ്ങനെ തട്ടീട്ടും അങ്ങനെയൊക്കെ ഒരവസ്ഥ വന്നത് അതും വലിയൊരു പരിക്കായിട്ടൊന്നുമില്ല നമ്മള് ആ പഠിക്കുന്നതിൻ്റെ ഒരു ഇതായിട്ട് നമ്മള് അതൊക്കെ തരണം ചെയ്തിട്ടുണ്ടേൽ നമുക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുവൊള്ളൂ ആ ഒരിതേ വന്നിട്ടുള്ളു അല്ലാണ്ട് എനിക്ക് വലിയ പരിക്കോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല